ആ ഞാന് വിഷ്ണുവാണ് വിളിക്കുന്നത് കസ്റ്റമർ ഒരു കാര് നോക്കാന് വേണ്ടിയിട്ടായിരുന്നു ഹ്യുണ്ടായീൻ്റെ

കാര് നോക്കുന്നത് ഏതാണ് നിങ്ങള് റെക്കമെൻ്റ് ചെയ്യുന്നത് അത്യാവശ്യം ഒരു ഫാമിലിക്ക് പറ്റിയത് ആ ഓക്കെ ഓക്കെ അപ്പോള് ഇതിന്റെ പ്രൈസും ഡീറ്റെയ്ൽസുമൊക്കെ ഇത് ലോണിടാന് പറ്റുമോ ഇ എം ഐ ആയിട്ട് ലോണായിട്ട് നമുക്ക് ആ ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്താണ് അടയ്ക്കാന് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് ആ മൂന്നിൻ്റെ അടുത്താണ് ആ പതിനഞ്ച് ലക്ഷമാണോ ആ ഹയ്യെസ്റ്റ് എടുക്കാം അതിലേതാണ് ബെറ്റര് ഹയ്യെസ്റ്റല്ലേ

ആ ഫുള് ഓപ്ഷന് മതി നമുക്ക് അത്യാവശ്യം ആ എന്നാല് ആ ആ ഫുള് ഓപ്ഷൻ മതി എന്നാല് ആ ഫുള് ഓപ്ഷന് എടുക്കാനായിരുന്നു

ആ കാണാറുണ്ടായിരുന്നു കളര് ഏതൊക്കെയാണുള്ളത് ബ്ലൂ മതി ബ്ലൂവാണ് നോക്കിവെച്ചിരിക്കുന്നതിപ്പോള് നമ്മള് നോക്കിവെച്ചിരിക്കുന്നത് ആ ബ്ലൂവാണ് നോക്കിവെച്ചിരിക്കുന്നത് ആ ആ ആണ് ആ ആ എന്നാല് ആ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് വേണമെങ്കില് ഇന്നുതന്നെ വരാം ആ ഇന്ന് വന്നിട്ട് ആ വണ്ടിയൊക്കെ നോക്കിയിട്ട് ആ ആ ഇന്നുതന്നെ ഞാനൊരു ഉച്ച കഴിയുമ്പോഴത്തേക്കൊക്കെ ഇറങ്ങാം എന്നിട്ട് ഏതാണ് വണ്ടിയെന്നുവെച്ചാല് നോക്കിയിട്ട് അതിന്റെ പേയ്മെൻറ്റും ബാക്കി ഡീറ്റെയ്ൽസുമൊക്കെ ഞാന് അവിടെ വരുമ്പോള് സംസാരിക്കാം

ആ ഇത് ആ ആ അതാണ് പറഞ്ഞത് ആ ആ അതാണ് പറഞ്ഞത് അവിടെ വന്നിട്ടാണെങ്കില് നമുക്ക് വേണ്ട വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടത് എടുക്കാമല്ലോ ആ അപ്പോള്

ആ ഓക്കെ ആ എന്നാല് ഞാനിന്ന് ആ ഞാന് എന്നാല് ഇന്നുച്ചയാകുമ്പോഴേക്കും ഇറങ്ങാം ആ ഈ നമ്പറില് തന്നെ വിളിച്ചാല് പോരെ സാര് ഇവിടെയുണ്ടാവില്ലേ ആ ഓക്കെ ഞാന് വരുമ്പോള് വിളിക്കാം കേട്ടോ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ എന്നാല് ഞാന് വരുമ്പോള് വിളിക്കാം കേട്ടോ ആ ശരി